ആ നെയ്ത്തിലും തുന്നലിലും ഇഷ്ടപ്പെടുന്ന പുസ്തകമോ യൂ ട്യൂബ് ചാനലോ സോഷ്യൽ മീഡിയ അക്കൗണ്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ അതുകൊണ്ടു തന്നെ അവയിൽ നിന്നും പ്രത്യേകമായിട്ടൊന്നും പഠിക്കാനുമില്ല നമ്മുടെ കഴിവുകള് സമൂഹത്തിൽ പരസ്യപ്പെടുത്തുന്നത് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിച്ച് വല്ല അറിവുകളോ ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലാത്ത തുന്നൽ എന്നുവച്ചാല് ചെറിയ രീതിയിലുള്ള നമ്മുടെ അത്യാവശ്യം വീട്ടിലുള്ള തുണികളൊക്കെ മാത്രമേ തുന്നുന്ന കാര്യങ്ങൾ ചെയ്യാറുള്ളു അല്ലാത്ത കാര്യങ്ങളിലൊന്നും തുന്നൽ പണികളിൽ ഏർപ്പെടാറില്ല